എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെറ്റിലാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പം ഞാൻ അവിടെ വെച്ചിട്ടാണ് ഇത് സംഭവം ആദ്യമായിട്ടു കാണുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി അതിനോട് അപ്പോൾ വാങ്ങണമെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞു സെറ്റാക്കി അങ്ങനെ ഞങ്ങൾ ഇത് വാങ്ങുന്നത് ഇതെന്തു കൊണ്ടും യൂസ്ഫുള്ളാണ് കാരണം ഇതിപ്പോൾ വെള്ളം ചൂടാവാനാണെങ്കിൽ നമ്മളിപ്പോൾ ഗ്യാസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ടൈമെടുക്കണം ഇപ്പം ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കു വെള്ളം ചൂടാക്കി കൊടുക്കണമെങ്കിലോ ചായ വയ്ക്കണമെങ്കിലോ ഒക്കെ ഭയങ്കര ടൈമെടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ അഞ്ച് മിനിറ്റിൽ നമുക്ക് പെട്ടെന്നു വെള്ളം ചൂടായി കിട്ടുന്നുണ്ട് നല്ല യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ കറണ്ട് ചാർജോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് വലിയ പേടിയൊന്നും വേണ്ട അതായത് കറണ്ട് ബില്ല് അത്ര കൂടുതലൊന്നും അല്ല ചെറിയ രീതിയിലെ വരുള്ളൂ അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ടൈം വേസ്റ്റ് ആവത്തില്ല അതുപോലെത്തന്നെ കറണ്ട് ബിൽ അങ്ങനെ കൂടുതലാവത്തില്ല എപ്പോഴും നമുക്ക് യൂസ്ഫുൾ തന്നെയാണ് അപ്പം എനിക്ക് ഈ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പരമാവധി ആളുകളിലേക്കൊക്കെ എത്തിയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അതായത് നമുക്കിതു കണ്ടാൽ പെട്ടെന്ന് അതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നും എനിക്ക് അതുപോലെ തന്നെയാണ് ഞാൻ അത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ട് അങ്ങനെ ഇൻ ഇൻട്രസ്റ്റ് ആയ ആളാണ് അതുപോലെ കാണുന്ന എല്ലാവർക്കും അതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നും